മറ്റ് രാജ്യങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പം ഇന്ത്യയുടെ ആരോഗ്യസംരക്ഷണം എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശം ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കൂടുതൽ ആണ് നമുക്ക് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ് ഇപ്പോൾ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ അതായത് നമുക്ക് ഈ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ആണല്ലോ നമ്മള് ഈ പാവപെട്ടവരൊക്കെ പോകുക അപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അതായത് പിന്നെ നമുക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് അവര് പിന്നെ നമ്മളെ വേറെ ഹോസ്പിറ്റലുകളിലേക്ക് ഒക്കെ റെഫർ ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ വരും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും അതായത് ഒരു അത്യാവശ്യ ഘട്ടം ആണെങ്കിൽ തന്നെ നമ്മള് ഇങ്ങനെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ചിലപ്പോൾ മരിക്കാൻ വരെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലില് എല്ലാം ഒരു ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എന്ന പേരുണ്ടങ്കിൽ അതിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടാവണം അല്ലെങ്കിൽ അതൊരു ഹോസ്പിറ്റൽ അല്ലല്ലോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പുറമേ എന്നൊക്കെ പറയണമെങ്കില് ഭയങ്കര നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതേപോലെ ഒരുപാട് ചാ ക്യൂ നിക്കേണ്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തി എല്ലാ കാര്യം കൊണ്ടും പുറമെ ഉള്ളത് തന്നെയാണ് നല്ലത്